ഹലോ ദിസ് കോൾ ഇസ് നൌ ബീൻ റെക്കോർഡെഡ് ഹലോ

ഓക്കെ ഓക്കെ എറയ്ക്ക് എത്രയിലാണ് പഠിക്കുന്നത് ഒരു മിനിറ്റ് എറയ്ക്ക് എത്രയിലായിരുന്നു പഠിക്കുന്നത് എൽ കെ ജിയിലാണല്ലേ ഓക്കെ ഓക്കെ ആ സിന്ധു ടീച്ചറിന്റെ ക്ലാസ്സിലാണല്ലേ ഓക്കെ

എന്നാൽ നിങ്ങൾക്ക് എന്ന് എന്ന് പോവാനായിട്ടാണ് വെള്ളിയാഴ്ച അന്ന് അല്ലേ എക്സാം തുടങ്ങുന്നത് ആ അന്ന് ആണല്ലോ മിഡ് ട്ടേം എക്സാം തുടങ്ങുവാണല്ലോ അന്ന് വെള്ളിയാഴ്ച ആണല്ലോ എറിക്കിനു എങ്ങനുണ്ട് അവന്റെ ക്ലാസ്സിലവൻ എങ്ങനുണ്ട് ആണല്ലേ ഞാൻ ആ സിന്ധു ടീച്ചറിന്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണോ നോട്ട്സ് വാങ്ങിക്കും അല്ലേ ഓക്കെ ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞ ടെസ്റ്റ് പേപ്പറിന് എറിക്കിന് എത്ര മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഫോർട്ടി റ്റു ഒക്കെ ഉണ്ടല്ലേ പഠിക്കുന്ന കുട്ടിയാണ് അപ്പം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എവിടെ എവിടെയാണ് പോവാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് ത്രീ ഡേയ്സ് വേണ്ടിവരുമായിരിക്കും അല്ലേ അപ്പം ഫോർ ഡേയ്സ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊന്ന് സിന്ധു ടീച്ചറിനെയും കൂടെ ഒന്ന് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഞാൻ കൺഫോം അറിയിക്കാവേ വിടുന്ന കാര്യം നോട്ട്സൊക്കെ വാട്ട്സ്ആപ്പിൽ കൂടെ നോട്ട്സൊക്കെ വാങ്ങിച്ചോളോ വാങ്ങിച്ചോളാം അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അതെ അതെ അതിന് തടസം ഒന്നും ഇല്ല എക്സാം ആയത് കൊണ്ട് ഞാൻ പറഞ്ഞന്നേ ഉള്ളൂ ഓക്കെ നിങ്ങൾ വാട്ട്സപ്പിക്കൂടെ നോട്ട്സൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഞാൻ സിന്ധു ടീച്ചറിനോടും കൂടെ ഒന്ന് പറഞ്ഞേക്കാം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തേക്ക് ലീവ് തന്നേക്കാം എനിക്ക് ഒരു മെയിൽ അയക്കണം കേട്ടോ

കേട്ടോ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ